കോഴി ഇറച്ചിയെ തന്നെ വളരെ അധികം ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു ഗ്രിൽഡ് ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കോഴിയിറച്ചി കറിയാക്കുക പിന്നെ ഫ്രൈഡ് ആക്കുക അങ്ങനെ പല തരത്തിലും കോഴി ഇറച്ചിയെ രൂപാന്തരപ്പെടുത്തുണു കോഴി ഇറച്ചിയെ കുറേ നാളത്തേക്ക് സൂക്ഷിക്കുന്നതിന് വേണ്ടി അച്ചാർ കോഴി ഇറച്ചി കൊണ്ട് അച്ചാറിടും മാത്രമല്ല കോഴി ഇറച്ചി ആദ്യം വേവിക്കുകയും പിന്നെ ഡ്രൈ ചെയ്ത് വീണ്ടും ഡ്രൈ ചെയ്ത് എയർ ടൈറ്റ് ഉള്ള കണ്ടെയ്നർ ബോക്സുകളിൽ ഒക്കെ ആക്കി വെച്ച് അത് കുറേ കാലം ലാസ്റ്റ് ചെയ്യും അതേപോലെ തന്നെയാണ് മൃഗങ്ങളെയും പിന്നെ പോത്തിനെയൊക്കെ വരട്ടി സൂക്ഷിക്കുന്നത് പതിവുണ്ട് അതില് കുരുമുളക് കൂടാതെ മറ്റു സുഗന്ധദ്രവ്യങ്ങൾ എല്ലാം ചേർത്ത് നന്നായി വരട്ടി വയ്ക്കുകയാണെങ്കിൽ അത് കുറേക്കാലം നിലനിൽക്കും അതേപോലെ പശുവിനെയും അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് അറിയാം ആട് ആടിൻ്റെ മാംസത്തിന് കൊഴുപ്പില്ല എന്നാണ് പറയുന്നത് പൊതുവേ അതുകൊണ്ടു തന്നെ മിക്ക ആൾക്കാരും ആടിൻ്റെ സൂപ്പായിക്കോട്ടെ ആടിനെ ഉപയോഗിച്ച് സൂപ്പ് വയ്ക്കുന്നു മാംസം ഔഷധഗുണമായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്